നമ്മുടെ സമുദായത്തില് ഇന്ന് പാരമ്പര്യമായി തന്നെയുള്ള കൃഷി എന്ന് പറയുന്നത് നെൽകൃഷിയാണ് നെൽകൃഷി ഞങ്ങൾക്ക് അര ഏക്കറ് വയലാണുള്ളത് അതില് നെൽകൃഷിയാണിപ്പം ചെയ്ത് വരുന്നത് പണ്ട് മുതലേ ഞങ്ങള് നെൽകൃഷി നെല്ല് എന്താ പറയുക ഞാറ് നട്ട് നെല്ല് ഉണ്ടാക്കി നെല്ല് കു പുഴുങ്ങി ഉണങ്ങി കുത്തിയിട്ടാണ് ഭക്ഷിക്കുന്നത് ഇപ്പഴും അത് നമ്മള് ഉപയോഗിക്കുക അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ച് വരുന്നത് പിന്നെ നെൽകൃഷി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വളരെയധികം ഉപകാരം ഉണ്ട് കാരണം നെൽകൃഷിയോടൊപ്പം തന്നെ നമ്മള് കാർഷിക ക്ഷീര മേഖലയിലും നമ്മള് പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അതിന് വൈക്കോല് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകും നമക്ക് വയലിലേക്കെക്കെയാണെങ്കിലും ജൈവ വളത്തിന് വേണ്ടിയിട്ട് ചാണകം നമുക്ക് കൊണ്ടുപോയി ഇടാൻ വേണ്ടിയിട്ട് സാധിക്കും ചാണകമൊക്കെ വയലിലാണ് വയലില് കൊണ്ടിട്ട് മറ്റു തരത്തിലുള്ളൊരു വളങ്ങളും ചേർക്കാതെ ഉള്ള നെൽകൃഷിയാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത് പിന്നെ പിന്നെ ക്ഷീരമേഖല പ പശു ക്ഷീരമേഖലയും കൂടിയിട്ടാണ് ആശ്രയിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ ഫാർം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്